ഞാന് ഒര് അഞ്ചാം ക്ലാസ്സ് തൊട്ടാണ് എൻ്റെ പൂന്തോട്ടം കാര്യങ്ങളുമൊക്കെ അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളത് കാരണം എന്താന്ന് വെച്ചാൽ അഞ്ചാക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് ഈ പരിസ്ഥി ദിനത്തിന് എന്താ പറയുക എനിക്ക് സ്കൂളിൽ നിന്ന് തൈകളൊക്കെ കിട്ടി തുടങ്ങിയത് കാരണം അഞ്ചാം ക്ലാസ്സ് ഒക്കെ എത്തിയ സമയത്താണ് ഇ ഇതിനെ പറ്റി എന്താ പറയുക പരിസ്ഥിതി ദിനത്തിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഒക്കെ കിട്ടിയത് ആ ടൈമിലാണ് എന്താന്ന് വെച്ചാൽ ചെടി നടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് അന്നാണ് അപ്പോൾ വീട്ടിൽകൊണ്ടു പോയി തൈ ഒക്കെ കൊണ്ടുപോയി ഞാൻ എന്താ പറയുക ഞാൻ എൻ്റേതായ രീതിയില് ഒരു തോട്ടം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കൊല്ലവും ഇത് കിട്ടുന്നത് കൊണ്ട് ഞാൻ ചില കൊല്ലങ്ങളിൽ ഞാൻ രണ്ടും മൂന്നും തൈയൊക്കെ ചോദിച്ച് മേടിച്ച് കൊണ്ടു വന്ന് നടുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാന് ആ ഒരു എന്താ പറയുക അഞ്ചാം ക്ലാസ്സിലൊക്കെ എത്തിയ ടൈമിലാണ് സ്വന്തമായിട്ട് ഒരു പൂന്തോട്ടം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതായത് ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പരിപാടിയൊക്കെ തുടങ്ങി വരുന്നത് പിന്നെ ഇപ്പോഴെന്ന് പറയുമ്പോൾ വീട്ടിൽ ഓൾ മോസ്റ്റ് അത്യാവശ്യം നല്ല ചെടികളും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഒരു ഗാർഡൻ സെറ്റ് അപ്പ് അല്ല വീട്ടിൽ തന്നെ എന്താ പറയുക വീടിൻ്റെ ഉള്ളിൽ ഇൻ്റീരിയർ ഞാൻ ഞാൻ എന്താ പറയുക ഇൻഡോർ പ്ലാൻ്റൊക്കെ കുറെ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഞാൻ എന്താ പറയുക കുറെ ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്